യൂട്യൂബിലുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചില പാചക ചാനലുകൾ വില്ലേജ് കുക്കിങ്ങ് ചാനൽ വില്ലേജ് ഫുഡ് ചാനൽ ഷമീസ് കിച്ചൺ നാച്ചുറൽ ലൈഫ് ടി വി ഷാൻ ജിയോ കുക്കിങ്ങ് ചാനൽ ദ റിയൽ വില്ലേജ് കുക്കിങ്ങ് ചാനൽ സാൾട്ട് ആൻഡ് പെപ്പർ ഫുഡ് ചാനൽ